സ്വാമി ശിവാനന്ദ തിരുമലൈ ബീച്ചിയെസ് പോലെ ഒരുപാട് യോഗാ ഗുരുക്കൾ ഉണ്ട് എന്നാലും ചിലർ നമ്മുടെ മനസ്സിൽ വളരെ പ്രത്യേകമാണ് യോഗാ ഗുരുക്കളെയും ഗുരുക്കളും യോഗ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഗുരുക്കളെല്ലാവരും തന്നെ നമ്മെ പഠിപ്പിക്കുന്നൊരു പ്രധാന ജീവിത പാഠമാണ് എങ്ങനെ ആരോഗ്യകരമായി ജീവിക്കാം യോഗയെ എങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം എന്നിങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഭീതിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലാണ് നാമിപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം എത്രയും അധികം യോഗയെ ആശ്രയിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ എന്ന് ഞാൻ പറയും കാരണം നമുക്കറിയാം ആരോഗ്യമെന്ന് പറയുന്നത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരുപാട് വസ്തുക്കൾ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഉള്ളിലെ ആന്തരിക അവയവങ്ങളെ വരെ വാങ്ങാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റും പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരുപാട് വസ്തുക്കൾ ഇല്ല വാങ്ങാൻ പറ്റും പറ്റാത്ത ചില വസ്തുക്കളിൽ ഒന്നാണ് ആരോഗ്യം അത്തരത്തിൽ ആരോഗ്യം വാങ്ങണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നാം പ്രത്യേകം ആ എന്താണ് പറയുക നമ്മൾ പ്രത്യേകമായി വ്യായാമം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വച്ച് കഴിഞ്ഞാൽ യോഗയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അപ്പം ഞാൻ പറഞ്ഞല്ലോ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല യോഗയിലുള്ളത് മറ്റ് പല വ്യായാമങ്ങളും എല്ലാവർക്കും ചെയ്യാം പറ്റാവുന്നത് പറ്റാത്തതൊക്കെ ഉണ്ടായെന്ന് വരാം പക്ഷേ യോഗ എന്ന് പറയുന്നത് പ്രായ ഭേദമന്യേ നമുക്ക് വീട്ടിൽ സ്ഥിരമായി ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളിൽ ഒന്നാണ് അത്തരത്തിലുള്ള യോഗാ ഗുരുക്കൾ തിരുമലയും ശിവാനന്ദയെ യോഗാ ഗുരുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റ് ഗുരുക്കളെല്ലാം പഠിപ്പിക്കുന്നത് പോലെയുള്ളൊരു ജീവിത പാഠമാണ് എങ്ങനെ എങ്ങനെ ജീവിതത്തിൽ ആരോഗ്യപരമായി ജീവിക്കാം അതാണ് അവർ പഠിപ്പിക്കുന്ന പാഠം